വർഷയല്ലെ ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറല്ലേ ആ നമുക്ക് കുറച്ച് വെഡിങ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് വരാൻ പറ്റുമോ എൻ്റെ പേര് മേഘ്ന അപ്പോള് ഒരു നെക്സ്റ്റ് മന്ത് ഓക്കെയാകുമോ ആ എന്നാല് നിങ്ങൾക്ക് എവിടെയെങ്കിലും അറിയുന്ന നല്ലൊരു പ്ലേസുണ്ടോ എന്നാല് ഇവിടെയൊരു ടെമ്പിളുണ്ട് തിരുനെല്ലി ടെമ്പിൾ അവിടെ നമുക്കൊന്ന് നോക്കിയിട്ട് ഞാൻ പറയാം

ആ അത് ഞാൻ ആ ഒരു ടൈം ആകുമ്പോള് നോക്കിയിട്ട് പറയാം കാരണം ഇപ്പോള് കുറച്ച് തിരക്കിലാണ് അപ്പോള് നെക്സ്റ്റ് മന്തേ ഒന്ന് ഫ്രീ ആകുകയുള്ളൂ അപ്പോള് ഞാൻ നോക്കിയിട്ട് പറയാം അപ്പോള് നിങ്ങളുടെ റേയ്റ്റ് എന്താണെന്നത് പറയുമോ ആ ഹ ഓക്കെ ആ ആ ഓക്കെ മ് ആ ഓക്കെയാണ് കുഴപ്പമില്ല ഞാൻ എന്തായാലും ആ ഒരു ടൈം ആകുമ്പോള് ഞാൻ പറയാം പിന്നെ നമ്മുടെ വെഡിങ് ബാക്കി വെഡിങിനുള്ള അതൊക്കെ നിങ്ങള് തന്നെ നോക്കില്ലെ

അത് അത് ഞാൻ പറയാം അത് ഡേയ്റ്റ് പറയാം ആ ഓക്കെ ഓക്കെ നിങ്ങളുടെ ടൈമും കൂടെ ഞാൻ നോക്കാം ഓക്കെ കുഴപ്പമില്ല ആ അപ്പോള് നിങ്ങള് ഇതാക്കില്ലെ ചെയ്യില്ലെ അപ്പോള് വേറെ ഞാൻ നോക്കേണ്ട ആവശ്യമില്ലല്ലോ ആ ഓക്കെ എന്നാല് ഓക്കെ താങ്ക് യൂ